മതപരമായ ആഘോഷങ്ങൾക്ക് സമൂഹം ഒത്തുകൂടുന്നത് പല സന്ദർഭങ്ങളിലും നമ്മള് കാണാറുള്ളതാണ് അങ്ങനെയുള്ളൊരു ഒത്തുകൂടലാണ് ചന്ദനക്കുടം ഉത്സവം ചന്ദ് ഈ ചന്ദനകുടം ഉത്സവത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സമൂഹത്തിള്ള പല മത സമൂഹത്തിലുളെളമാലും ആളുകൾ സന്തോഷപൂർവം ഒത്തുചേർ ചേരാറാണ് പതിവ് അതായത് ഹിന്ദുക്കളോ ക്രിസ്ത്യൻ ക്രിസ്താനികളോ മുസ്ലിംസോ അങ്ങനെ ഒരു മതം മതഭേദമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ഒത്തു ചേരുന്നൊരു ആഘോഷചടങ്ങാണ് ചന്ദനക്കുടം ഉത്സവം അതിന് അത് ഇത് രണ്ടും കു ഇത് കൂടുതലായും നടക്കാറുള്ളത് ഡിസംബർമ നടത്തുന്നത് ഡിസംബർ മാസത്തെ ക്രിസ്മന്തെന്തൊ ക്രിസ്മസ്സിനോട് അനുബന്ധിച്ചാണ് ഇത് നടത്താറുള്ളത് ഇതേ സമയത്ത് അ ആ ഇത് ഈ ആഘോഷം രണ്ടു ദിവസം നീണ്ടുനില്ക്കുന്നൊരു ആഘോഷമാണ് പലതരത്തിലുള്ള കലാ കലാസന്ധ്യകളും പല പല ആഘോഷങ്ങളിലും ആകാശ വിസ്മയ കാഴ്ചകളിലേക്കും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എല്ലാവരും ഒറ്റമനസ്സോടെ ഒരുമിച്ചു വന്ന് എല്ലാ നാമെല്ലാം ഒന്നാണ് എന്നും പറഞ്ഞ് എല്ലാവരും പല തരത്തിലുള്ള മതത്തിൻ്റെ പേരിലോ ഒന്നും അടിയുണ്ടാക്കാതെ നമ്മൾ അത് സാഹോദര്യ സ്നേഹത്തിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് ഈ ചന്ദനക്കുടം ആഘോഷം ഇതില് എല്ലാവരും തങ്ങളുടെ പൂർണമനസ്സോടെ സന്തോഷത്തോടെ വന്ന് പങ്കുചേരാനും അവന്നവർടെക്കൊണ്ടു സാധിക്കുന്ന ഈ ആഘോഷം എത്ര മനോഹരമാക്കാവോ അ അതിനുംവേണ്ടിയിട്ട് നം അവനവനെക്കൊണ്ട് സാധിക്കുന്ന എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യാതും ഉണ്ട് അപ്പോള് ആദ്യം തന്നെ ഇത് ഈ ആഘോഷത്തിൽ ആരും തന്നെ ഇവിടെ മുൻസിപ്പാലിറ്റി എൻ എസ് എസ് ചാരിറ്റിയുടെ അവിടെനിന്നാണ് ഇത് ആരംഭിക്കുന്നത് ഇ ഇവ നടത്തുന്നത് പൊതുവായി നടത്തുന്നത് നമ്മടെ ഹിന്ദു സമൂഹങ്ങളാണ് ഇ ഇവ ഇവരുടെ ഈ സമൂഹ സാഹോദരങ്ങളുടെയടുത്തുനിന്ന് അത് സ് തുടങ്ങി നമ്മൾ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അവിടെ വരവേറ്റ് അവിടുന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ അടുത്തോട്ട് പോകുന്നൊരു നീണ്ട ആഘോഷമാണിത് എല്ലാ മാ ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഇതിൽ സന്തോഷത്തോടെ പങ്കുചേരുന്നു ഇവിടെ വർഗ്ഗം വർണ്ണം ജാതി മതം ഇവയൊന്നും കണക്കുകൂട്ടാതെ എല്ലാവരും സാഹോദര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ വർഷവും മുടങ്ങാതെ കൊണ്ടുപോകുന്ന ഒരാഘോഷമാണ് ചന്ദനക്കുടം ആഘോഷം ഇവിടെ നമുക്ക് ഒരുപാട് ആളുകൾ വന്ന് പങ്കുചേരുന്നത് കാണാം ഒരുപാട് വ്യക്തികൾ വന്ന് പങ്ക് ചേരുന്നതുകാണാം പിന്നീട് നമുക്ക് പല തരത്തിലുള്ള വിസ്മയ കാഴ്ചകള് ആഘോഷങ്ങള് എല്ലാം കാണാം ചങ്ങനാശ്ശേരി എന്ന ഒരു സ്ഥലത്താണ് ഇത് നടക്കാറുള്ളത് രണ്ടാം രണ്ടു ദിവസം മു നീണ്ടുനില്ക്കുന്ന ഈ ആഘോഷം വന്ന് പലതരം വർണ്ണപകിട്ട ആഘോ കാഴ്ചകളോടെയാണ് അവസാനിക്കാറ്